ഹലോ വെൽനസ് ന്യൂട്രീഷണൽ സെൻ്റർ ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ ഹൗ കാൻ ഐ ഹെല്പ് യു ആ ഓക്കെ ഓക്കെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ നിങ്ങളുടെ ഏജ് എത്രയാണ് ആ ഓക്കെ മാരീഡ് ആണോ ഓക്കെ നിങ്ങൾക്കിപ്പം വല്ല ഹെൽത്ത് പ്രോബ്ലെംസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മരുന്നെടുക്കുന്നുണ്ടോ ഡയറ്റ് അല്ലാതെ എന്തെങ്കിലും മരുന്നോ മെഡിറ്റേഷൻസോ ഉണ്ടോ ആ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലെംസും കാര്യങ്ങളും ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിഞ്ഞിട്ടേ നമുക്ക് ഡയറ്റ് കൺസൾട്ട് ചെയ്യാൻ പറ്റൂള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പി സി ഒ ഡി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലെംസ് ഉണ്ടോ ആ അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ചെക്കപ്പ് ഒക്കെ യു കെയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അവിടുന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് എനിക്ക് വാട്ട്സപ്പ് ചെയ്തുതരണം ആ പിന്നെ എന്തെങ്കിലും ഹെറിഡിട്രിയായിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടില്ല അതിന് മെഡിറ്റേഷൻസ് ഒന്നും ഇല്ലല്ലേ ഓക്കെ നിങ്ങളുടെ ഫുഡ്ഡ് ആ ആ നമുക്കിത് പെട്ടെന്നൊരു ഡയറ്റ് ഇടാൻ പറ്റില്ല കാരണം നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ അറിയണമല്ലോ നിങ്ങളുടെ ഫുഡിൻ്റെതായാലും ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയ ഒരാളും കൂടിയാണ് അപ്പോൾ അവിടെയുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ഫുഡ്ഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നിങ്ങൾക്ക് ഡയറ്റ് ഇടാൻ പറ്റൂ നിങ്ങളുടെ ഫുഡ് പ്രിഫെറൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു ഗൂഗിൾ ഫോമ് നിങ്ങൾക്ക് അയച്ച് തരും ഇതൊക്കെ ആ പിന്നെ നിങ്ങളിപ്പം ആ നിങ്ങൾക്കെന്തെങ്കിലും ഹെറിഡിട്രി എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഷുഗർ പിന്നെ ഡയബറ്റിക് പേഷ്യന്റ് അല്ലല്ലോ ആ കൊളസ്ട്രോൾ ലെവലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ അത് കൊളസ്ട്രോൾ ലെവലൊക്കെ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഓവർ വെയ്റ്റ് ആണോ നിങ്ങളുടെ ഹെയർ ലോസിൻ്റെ പ്രോബ്ലം ഉണ്ടല്ലേ ആ നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് ബി എം ഐ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ച് തരണം എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഡയറ്റ് ഇടാൻ പറ്റൂ ആ ആ ആ നിങ്ങൾ വേഗൻ ആണോ നിങ്ങൾ വെജിറ്റേറിയൻ ആണോ ആ ഓക്കെ ഓക്കെ ആപ്പോൾ ഇപ്പോൾ പ്രശ്നം ഇല്ല നമുക്ക് കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റും അതുപോലെ ഫൈബർ കണ്ടൻറ്റും ഉള്ള ഫുഡ്ഡ് ആണ് നിങ്ങൾ കൂടുതൽ കഴിക്കേണ്ടത് ഇപ്പോൾ കോൺസ്റ്റിപേഷൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അങ്ങനെയുള്ള ഫുഡ്ഡ് ആണ് ഫ്രിഫെറ് ചെയ്യുക കൂടുതലും പിന്നെ നാര് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക നമ്മളെ ഓറഞ്ച് അതേപോലെ പഴം അങ്ങനെയുള്ള നാരുള്ള ഭക്ഷണങ്ങളില്ലേ ഒരുപാട് കഴിക്കുക വെജിറ്റബിൾസ് കൂടുതൽ ഇലക്കറികളും വെജീസും കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് ഡയറ്റിലോട്ട് ഈ പൊറോട്ട പോലുള്ള ഭക്ഷണമായിരിക്കും നിങ്ങൾ യു കെയിൽ ആയതുകൊണ്ട് അതിനെ കുറിച്ച് പേടിക്കാനില്ല പൊറോട്ടയൊക്കെ നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ അവിടെ ഇല്ലല്ലോ അപ്പോൾ അതൊക്കെയൊന്ന് കൺട്രോൾ ചെയ്യുക നേരത്തെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ആ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫർദർ ഡീറ്റെയിൽസ് എനിക്ക് അയച്ച് തരൂ വാട്ട്സ്പ്പിൽ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ